ഹലോ ഇതാരായിരുന്നു

പുഴമീന് ആയിരത്തി ഇരുന്നൂറ് റൈറ്റ് പിന്നെ ചെമ്മീന് നാന്നൂറ് പിന്നെ ആണോ ഒരുപാട് കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറച്ച് റേറ്റ് കുറച്ച് തരാം പിന്നേ പിലോപ്പിയുണ്ട് കരിമീനുണ്ട് പിന്നെ ചെമ്പല്ലിയുണ്ട് മത്തിയുണ്ട് അയില പിന്നേ ഞണ്ട് കക്കാ പിന്നെ ഈ വലിയ വലിയ ആവോലി ഐക്കൂറ ഏട്ടാ പിന്നെ വാളാ എല്ലാ മീനുകളും ഉണ്ട് ഇവിടെ എല്ലാ മീനുകളും വരുന്ന ഒരു മാർക്കറ്റാണിവിടെ ഏറ്റവും കൂടുതൽ മീനുകൾ ഉള്ള ഒരു സ്ഥലം കടലിൻ്റെ തീരത്ത് തന്നെയാണ് ഇപ്പുറം കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റി ഞങ്ങൾ വലിയൊരു മാർക്കറ്റ് പോലെയാക്കി അപ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടും രണ്ടായി രണ്ടും ഉണ്ട് ചെറുതും ഉണ്ട് വലുതും ഉണ്ട് ചെറുതിന് റേറ്റ് മൂന്നൂറ് വലുതിന് റേറ്റ് കൂടുതൽ ആണ് ആ ഡെലിവറി ചെയ്യും പിന്നെ മേഡം ആദ്യം ഞങ്ങൾ എന്തൊക്കെ മീനാണ് മേഡത്തിന് വേണ്ടത് ഞങ്ങൾ തരിക എന്തൊക്കെ മീനാണ് വേണ്ടതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ മേഡം വാട്സപ്പ് ചെയ്താൽ മതി എന്നിട്ട് ഞങ്ങളത് ഡെലിവെറി ബോയിൻ്റടുത്ത് കൊടുത്ത് വിടാം എവിടെയാണ് സ്ഥലം അഡ്രസ്സൊക്കെ വാട്സപ്പ് ചെയ്തു തന്നാൽ മതി ഓക്കെ ഓക്കെ ഓക്കെ ആ